വിദ്യാഭ്യാസം എപ്പോൾ വേണമെങ്കിലും മക്കളൊരുപാട് പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടുന്നുണ്ട് ഒരു എം ബി എക്കാരനോ ഒക്കെ എല്ലാം പഠിച്ച് എല്ലാം നേടിയ ഒരാളാണെങ്കിലും അവർക്ക് തൊഴിൽ കിട്ടാൻ ഭയകര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവർക്കൊരു ജോബ് എന്നത് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോഴൊരു എം ബി ബി എസ് പഠിച്ചിറങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്നുണ്ട് പക്ഷെ അവർക്കൊരു ജോബ് എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് എല്ലാവർക്കും ഈ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും അതേ അവർ പഠിച്ച അതേ ഒരിതിൽ ജോബ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാണുന്നുണ്ട്